ആ മലയാള ഭാഷയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിലുള്ള കാര്യമാണ് പണ്ട് കാലങ്ങളിൽ ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായതെന്നാണ് അപ്പം ഈ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയപ്പെടുന്നത് എഴുത്തച്ഛനാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പം മലയാള ഭാഷ അന്നത്തെ എഴുത്തച്ഛൻ അതുപോലെയുള്ള എഴുത്തുകാരുടെയൊക്കെ ഫലമായിട്ട് നമ്മുടെ മലയാള ഭാഷ വികസിക്കുകയും പിന്നെ അതുപോലെ നമ്മുടെ മലയാളഭാഷയ്ക്ക് ദ്രാവിഡ ഭാഷയിൽനിന്ന് ചില വാക്കുകളൊക്കെ ഉൾക്കൊണ്ടിട്ടായിരുന്നു കാരണം ദ്രാവിഡ ഭാഷയിൽ നിന്നാണല്ലൊ മലയാളം ഭാഷ ഉണ്ടായത് അപ്പം അങ്ങനെത്തെ കാര്യങ്ങൾ കുറച്ച് തമിഴൊക്കെ കൂടിയിട്ടായിരുന്നു നമ്മുടെ ആദ്യകാലങ്ങളിൽ രചനകളിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അതിന് ശേഷം പിന്നെ നമ്മുടെ മലയാളഭാഷയിൽ ഒരുപാട് വത്യാസങ്ങളൊക്കെ വന്നു ഇപ്പോൾ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഭാഷ വികസിക്കുകയും അതുപോലെത്തന്നെ കാലക്രമേണ അതിന് ഒരുപാട് മാറ്റങ്ങൾ വരികയും പിന്നെ ഒത്തിരി വികാസ പരിണാമങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പഷെ പല പരിണാമങ്ങളിലൂടെയാണ് ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഭാഷ നിലനിൽക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതുപോലെത്തന്നെ കേരളത്തിലെ മലയാളഭാഷയ്ക്ക് പലയിടത്തും പലരീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ഇപ്പം മലപ്പുറം ജില്ല മാത്രം ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ ഈ എനിക്ക് വയ്യ എന്നുള്ളതിന് ഇച്ച് വയ്യ ഇച്ച് വജ്ജ അതേപോലെത്തന്നെ പശു എന്നുള്ളതിന് പജ്ജ് നീ എന്നുള്ളതിന് ഇജ്ജ് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത് പഷേ ഇപ്പോൾ അതിൽനിന്നൊക്കെ ആളുകളെ വളരെയധികം വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സമ്പന്നരായപ്പോഴേക്കും അതിൽനിന്നും ഒരുപാട് മാറ്റം വന്നു ഇപ്പോൾ എനിക്ക് വയ്യ എന്നുള്ളതിന് ആ രീതിയിൽത്തന്നെ സംസാരിക്കാനും പിന്നെ അവയുടെ സംസ്കാരം ഒരുപാട് പരിണമിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു സംസാരം ആവുകയും ചെയ്തിട്ടുണ്ട്